അഞ്ച് ആറ് രണ്ടായിരത്തി രണ്ട് ആറ് ഏഴ് രണ്ടായിരത്തി മൂന്ന് ഏഴ് നാല് രണ്ടായിരത്തി അഞ്ച് എട്ട് ഒമ്പത് രണ്ടായിരത്തി ആറ് മുപ്പത് രണ്ട് രണ്ടായിരത്തി നാല്